ഒരു ചിത്രം വരയ്ക്കാൻ എൻ്റെ തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത് എപ്പോഴാണോ ഒരു ചിത്രം വരയ്ക്കാനായി നമ്മൾ പേന അല്ലെങ്കിൽ പെൻസിൽ ആ ഉപകരണം എടുക്കുമ്പോൾ ആ നിമിഷം മുതൽ മറ്റെല്ലാം മറന്ന് എന്താണോ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ആ വരയിലൂടെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനെ പറ്റി ചിന്തകൾ മാത്രമായിരിക്കും ആദ്യം മനസ്സിൽ വരുന്നത് അതിനുശേഷം

പെൻസിൽ അല്ലെങ്കിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആ വസ്തു അതിൻ്റെ ഗുണനിലവാരം നോക്കുന്നു അത് അനുയോജ്യമായി ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ചിത്രം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതിൻ്റെ നൂറ് ശതമാനം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അതിലേക്ക് ആ ചിത്രത്തിൻ്റെ രൂപം പൂർത്തീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു ഒരു ചിത്രത്തിൻ്റെ മനോഹരം ആയ ഒരു മുഖമെന്ന് പറയുന്നത് എന്താണോ ആ ചിത്രകാരൻ മനസ്സിൽ വിചാരിക്കുന്നത് അത് അതേപടി ആ പെൻസിലിലൂടെ കൈകളിലൂടെ ആ വരയിൽ അത് പൂർത്തീകരിക്കാൻ കഴിയണം എന്നുള്ളത് തന്നെയാണ് എങ്കിൽ മാത്രമേ വരച്ച ആൾക്കും അല്ലെങ്കിൽ വര കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നിക്കുന്ന അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ അല്ലെങ്കിൽ ആരെയാണോ നമ്മളിത് കാണിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ഒരു യാഥാർത്ഥ്യമായ ആ ഒരു മറുപടി അല്ലെങ്കിൽ അഭിപ്രായം നമുക്ക് ലഭിക്കുള്ളൂ ഒരിക്കലും മറ്റ് ഓൺലൈനുകളിലോ മറ്റ് ഒന്നും ഉറവിടങ്ങളിൽന്നും റെഫർ ചെയ്യാറില്ല കഴിവതും മനസ്സാണ് കയ്യെ നിയന്ത്രിക്കുന്നതും ആ കയ്യിലൂടെ ആ വരയെ പൂർത്തീകരിക്കാൻ സഹായിക്കുന്നതും എൻ്റെ അവസാനം വരച്ച ചിത്രം എന്ന് പറയുന്നത് എൻ്റെ നാടിൻ്റെ യശസ്സ് ഉണർത്തുന്ന പള്ളിയോടത്തിൻ്റെ ഒരു പൂർണ്ണചിത്രമാണ് ആ ചിത്രം വരയ്ക്കാൻ തന്നെ എനിക്ക് കണ്ണടച്ച് അല്ലെങ്കിൽ ഉൾക്കണ്ണാൽ കണ്ടെനിക്ക് വരയ്ക്കാൻ കഴിയുന്ന ഒന്നാണ് കാരണം കണ്ണിലൂടെയും മനസ്സിലൂടെയും ഒരുപാട് അടുത്തറിഞ്ഞതാണ് ആ പള്ളിയോടമെന്ന ആ വികാരം അപ്പം അതുകൊണ്ട് എനിക്കത് വരയ്ക്കുമ്പോൾ എപ്പോഴും സന്തോഷവും അതിലുപരി അതിൻ്റെ പൂർണ്ണത എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉറച്ച വിശ്വാസം മനസ്സിൽ എപ്പോഴുമുണ്ട് എപ്പോഴും നമുക്ക് ഒരു വരയുടെ അതിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് ദൃഢബോധം ദൃഢനിശ്ചയം അതുപോലെ തന്നെ ഏകാന്തത സൂക്ഷ്മമായ നിരീക്ഷണം ഇതെല്ലാം ഒരു വരയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് പ്രത്യേകിച്ച് നമ്മൾ അപയോഗിക്കുന്ന ആ വസ്തു അതായത് ചിലർ ബ്രഷ് വെച്ച് അല്ലെങ്കിൽ ചിലർ പെൻസിൽ വെച്ച് ചിലർ പേന വെച്ച് ചിലർ ഇതല്ലാതെ കൈകൊണ്ടും മറ്റും വരയ്ക്കുന്ന ഒട്ടനവധി കലാകാരന്മാർ ഉണ്ട് ചിത്രകാരന്മാർ അപ്പം അവരുടെ ഒക്കെ ആ ആയുധമാണ് അവരുടെ ചിത്രത്തിൻ്റെ ബലമെന്ന് പറയുന്നത് അപ്പം ആ ആയുധങ്ങളൊക്കെ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ അതിനെ ആ ആയുധത്തെ സ്നേഹിച്ചും വേണം നമുക്ക് ഒരു ചിത്ര ചിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ ഒരു അങ്കത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇരിക്കേണ്ടത് നമ്മടെ ആയുധം മൂർച്ചയേറിയതും അല്ലെങ്കിൽ ആയുധം ഗുണനിലവാരം ഇല്ലാത്തതുമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിക്കും അത്ര നിലവാരവും അത്രയും വിജയസാധ്യതയേ ലഭിക്കുള്ളൂ വരയ്ക്കും അതേ മാതൃക തന്നെയാണുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ആ വസ്തു എന്തിനെയാണോ വരയ്ക്കാൻ ഏത് ഉപകരണം കൊണ്ടാണോ നമ്മൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഏറ്റവും നല്ലത് മാത്രം നമ്മൾ അത് ചൂസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മുടെ വരയ്ക്കും അത് ഗുണം ചെയ്യുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ എന്താണോ വരയ്ക്കുന്നതിൻ്റെ പൂർണ്ണമായൊരു ബോധം ഉൾബോധം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഒരു വര പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് ആ വരയുടെ ശരിക്കുമുള്ള സൗന്ദര്യത്തെ ആസ്വദിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് മറ്റുള്ളവരിൽ എത്തിക്കാനും കഴിയുള്ളൂ